ആ പണ്ടത്തെ ഫോട്ടോ ഞാന് കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മവീട്ടിലൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത് ഇത്രയും വർഷം പഴക്കമായിട്ടും ചെറിയ ചെറിയൊരു തകരാറേ ഉള്ളൂ അന്നേരം ക്ലാരിറ്റി ഉണ്ട് കണ്ടാൽ മനസ്സിലാകും ആരൊക്കെയാണ് ആരൊക്കെയാണെന്ന് മനസ്സിലാകും പക്ഷെ ഇപ്പോഴത്തെ ഫോട്ടോയെന്നുപറയുമ്പോള് ഒരു രണ്ടു വർഷം കഴിയുമ്പോള് ഒരു ഫോട്ടോയുടെ സൈഡൊക്കെയാണെങ്കില് വീണ്ടും അതൊക്കെ പോയി ഒരു വെള്ളനിറത്തില് ഷെയിഡഡായിട്ടിങ്ങനെ ഇരിക്കും പക്ഷെ പണ്ടത്തെ ഫോട്ടോ എന്നുപറഞ്ഞാല് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരിച്ചിരി ഇതിലൊന്നു ഇച്ചിരി ഫെയിടായതേയുള്ളൂ വേറെ ഒരു കുഴപ്പവുമില്ല പിന്നെ ഡിജിറ്റലായിട്ട് ഫോട്ടോ സൂക്ഷിക്കുക എന്നുപറഞ്ഞാല് അത് എന്തോ നമ്മുടെ കയ്യില് സെയിഫായിട്ട് ഇരിക്കുകയല്ലേ അപ്പോള് ആ ഒരു രീതിയില് ഫോട്ടോ ഡിജിറ്റല് നല്ലതാണ് പിന്നെ അല്ലാതെ ഫോട്ടോ എന്നുപറയുന്നെ പ്രിൻറ്റ് വെച്ച് നോക്കുവാണെങ്കില് പഴയ ഫോട്ടോയാണ് നല്ലത് ഇപ്പൊഴത്തെ ഫോട്ടോയെക്കാളിലും ഒരു ഒരു പ്രത്യേക ഒരു ലുക്കൊക്കെയുള്ളത് പഴയ ഫോട്ടോയാണ് ബ്ലാക്കാൻവൈറ്റാണേലും ബ്ലാക്കാൻവൈറ്റാണേലും ഞാൻ തന്നെ ആദ്യം കുഞ്ഞിലേയൊക്കെ കണ്ടപ്പോള് ഭയങ്കര അതിശയമായിരുന്നു ഇതെന്താ അന്നെല്ലാം കല്യാണത്തിന് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് കെട്ടോ ബ്ലാക്കാൻവൈറ്റ് ഡ്രസ്സാണ് ഇടുന്നെന്നൊക്കെ ഒരു ഒരു ജസ്റ്റൊരു കൗതുകം ആണോ ഞാന് അന്നത്തെ കാലത്തൊക്കെ അങ്ങനാരുന്നു അതെന്താ ഒരേപോലത്തെ ഡ്രസ്സൊക്കെയിടുന്നത് ഭയങ്കര സംശയമായിരുന്നു പക്ഷെ ഇന്നാണെങ്കില് നേരെ ഓപ്പോസിറ്റായി കളർ പിക്ചേഴ്സൊക്കെ വരാന് തുടങ്ങി അതൊക്കെവെച്ചുനോക്കുമ്പോള് ഇന്ന് ഇത് ഇത്തവണത്തെ ഈ ന്യൂ ജനറേഷൻ ഫോട്ടോയാണ് നല്ലത് കളർ കളറുവെച്ചുനോക്കുമ്പോള് പക്ഷെ എന്നാലും ഒരു ക്ലാരിറ്റിയും ഉള്ളത് പഴയ ഫോട്ടോയൊക്കെയാണ് പഴയകാലത്തെ ഫോട്ടോയൊക്കെയാണ് പിന്നാ ഫോട്ടോ നമുക്ക് എപ്പോഴും ഒരു മെമ്മറബിളായുള്ളൊരു കാര്യമാണ് ഫോട്ടോ പഴയ ഫോട്ടോയാണേലും നമുക്ക് കാണുമ്പോള്ത്തന്നെ ഇപ്പോള് ചിലത് ചിരി വരും ചിലത് സന്തോഷം വരും ഇപ്പോള് നമുക്ക് ഇപ്പോള് ദേഷ്യത്തിലിരിക്കുന്ന ദേഷ്യത്തിലിരിക്കുമ്പോഴെടുത്ത ഫോട്ടോയാണേലും അത് കാണുമ്പോള്ത്തന്നെ നമുക്കിപ്പോള് ചിരി വരും